ഒരു ദിവസം ഉച്ച ആകുമ്പോഴത്തേക്കും ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കസ്റ്റമറ് പറഞ്ഞു തലേന്ന് രാത്രി ആണ് വിളിച്ച് പറയുന്നത് നാളെ രാവിലെ ഉച്ച ആകുമ്പോഴത്തേക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു തരണം ആ സമയത്ത് അന്ന രാവിലെ ആണെങ്കിൽ എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടായിരുന്നു പിന്നെ തല വേദനയും പനിയും ഒക്കെ ആയിട്ട് അങ്ങന ആ സമയത്ത് എന്താ ചെയ്യുകയെന്ന് ഉള്ളൊരു പിടിത്തവും ഇല്ല അങ്ങനെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി വന്ന് അതിന് ശേഷം ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ അത് തുന്നുകയും വേണമല്ലോ അങ്ങനെ ആ സമയത്ത് കരണ്ടും പോയി മോട്ടറിൽ ആണ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ എന്തൊക്കെയോ എന്താ പറയുക ഒരുപാട് പിന്നെ ചവിട്ടി അടിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷം തുന്നി ഉച്ച ആകുമ്പോഴത്തേക്ക് എങ്ങനെയോ ഞാൻ അത് കഷ്ടപ്പെട്ട് കൊടുത്തു